ഇപ്പോൾ ഞങ്ങളുടെ പൂന്തോട്ടത്തേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കേ ഉണ്ടായിരുന്നു കാരണമെന്തെന്ന് വെച്ചാൽ ഇത് അതായത് പൂ നശിച്ചു പോകാണ്ടിരിക്കാനും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കേ വേണ്ടിയിട്ട് കൂടുതലായിട്ടും നമ്മൾ പല രീതിയിലുള്ള കീടനാശിനികളും കാര്യങ്ങളൊക്കേ അടിക്കാറുണ്ട് കാരണമെന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ കൊതുക് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കൊതുക് കാര്യങ്ങളൊക്കേ വന്നിട്ട് ഈ പൂക്കളും കാര്യങ്ങളൊക്കേ നശിപ്പിക്കാൻ ഉള്ള സാദ്ധ്യതകൾ ഒക്കേ കൂടുതലാണ് അപ്പം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കേ ഉണ്ട് പിന്നേ നമ്മൾ അവിടേ ഇവിടെയൊക്കേ വെള്ളം കെട്ടി നിൽക്കും അപ്പം അതൊക്കേ മറിച്ചു കളയുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യങ്ങൾ കുറയും അപ്പോൾ അതൊക്കേ ഞങ്ങൾ മറിച്ചു കളഞ്ഞിട്ട് വേണം എന്താ പറയുക ഇപ്പം ചിരട്ട കാര്യങ്ങളൊക്കേ നമ്മളിങ്ങനെ വെള്ളം അതായത് ഈ ചെടിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കേ ചിരട്ട ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിലൊക്കേ കൊതുക് വന്ന് മുട്ടയിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കേ ഉണ്ടാകും അപ്പം പല രീതിയിലുള്ള കീടങ്ങളും ക്ഷുദ്ര ജന്തുക്കളും എന്നിവയൊക്കേ നമ്മുടെ പൂന്തോട്ടത്തിൽ കേറിയിട്ട് പല രീതിയിൽ ഇതാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുകയില കഷായം അങ്ങനത്തെ പല രീതിയിലുള്ള പ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനത്തേ ഒരു എന്താ പറയുക ക്ഷുദ്രജീവികളും കാര്യങ്ങളൊന്നും വരില്ലാ